ലോക്ക്ഡൗൺ കാലത്ത് കൂടുതൽ കൂടുതലും നമ്മളുണ്ടാക്കി പരിശീലിച്ചത് കേക്കുകളും ഡെസേർട്ടുകളും അതുപോലെ തന്നെ പല വിഭവങ്ങളുമുക്കി പരിശീലിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു നോമ്പ് കാലമുണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി പരിശീലിക്കാറുണ്ടായിരു കേക്കുകളുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അബദ്ധം കാണിച്ച് വച്ചത് കേക്കുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു പഴത്തിൻ്റെ കേക്ക് അതേപോലെ ചക്ക കേക്ക് അങ്ങനെയുള്ള ഒരുപാട് കേക്കുകൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കേക്കുകൾ നമുക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ റൈസ് ഐറ്റംസ് ചോറുകൾ ബിരിയാണി മന്തി കബ്സ അങ്ങനെയുള്ള ഒരുപാട് ചോറുകൾ ഞങ്ങളുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഒരുപാട് പേർക്ക് പനിയും ജലദോഷമൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒറ്റക്ക് ഉണ്ടാക്കി പരിശീലിച്ചു കഞ്ഞി അതേപോലെ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞാനുണ്ടാക്കിയിട്ടൂണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടൂണ്ട് പിന്നെ എല്ലാവർക്കും അസുഖം ബാധിച്ച് കിടന്നിരുന്ന സമയം ഉണ്ടായിരുന്നു ലോക്ക്ഡൗണിന് എല്ലാവരും റൂമിലൊക്കെ പനി പിടിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൂണ്ട് ചോറും അതേപോലെ കഞ്ഞി അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഭവങ്ങളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തെ കടികൾ പക്ക വട ഉള്ളി വട ഉഴുന്ന് വട പരിപ്പ് വട അങ്ങനെയുള്ള ഒരുപാട് കടികളും ലോക്ക്ഡൗൺ കാലത്ത് പരീക്ഷിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ജ്യൂസുകൾ ഒരുപാട് ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഒരുപാട് പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജ്യൂസ് പോലെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ ജ്യൂസടിച്ചു അതേപോലെ പുഡ്ഡിങ്ങൊക്കെ ഉണ്ടാക്കി ഒക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോക്ക്ഡൗൺ കാലത്താണ് ഏറ്റവും കൂടുതൽ പാചകം

കഴിക്കാനോ ഓർഡറ് ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാവരും സ്വന്തം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് പരിശീലിച്ചതാണ് ആ ഒരു സമയമാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്